പ്രത്യേകിച്ച് ഞങ്ങള് വീട്ടിൽ ഇതൊന്നും ഉല്പാദിപ്പിക്കുന്നില്ല കൃഷി ഫാം അടുത്തുണ്ട് അന്നേരം പിന്നെ അവിടുന്ന് അവര് വിളിക്കുമ്പോൾ പോയി കൊണ്ടുവരും അത് ച് കൊണ്ടുവന്നു കൃഷി ചെയ്യും അത്രയും ഉള്ളൂ പിന്നെ ഇതിന് ഇടാനുള്ള ചകിരി ചോറും ചെടിയാണെങ്കിൽ അതിന് പിന്നെ തെങ്ങാണെങ്കിൽ അതിനിടാനുള്ള വളങ്ങള് എല്ലാം അവിടുന്ന് തന്നെ കൃഷിഫാമിൽ നിന്ന് തരുന്നുണ്ട് എല്ലാ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് അവര് വരുമ്പോൾ അവര് വിളിക്കുകയും ചെയ്യും പിന്നെ വീട്ടില് നമ്മളിപ്പോൾ തക്കാളി ഒക്കെ തന്നെ വിത്തെടുത്തിട്ട് ചെയ്യൽ ഉണ്ട് തക്കാളിയുടെ കുരുന്നെടുത്ത് ചെയ്യുന്നുണ്ട് ഇത് ഉണ്ടാവുന്നുണ്ട് മറ്റേ പോളിതീൻ കവറില് വെച്ച് ചെടികൾ വെക്കുന്നുണ്ട് അത് കൃഷിഫാമിൽ നിന്ന് അവര് കവറ് തരക്കം ഫ്രീയായിട്ട് തരുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇപ്പം കുട്ടുപ്പാളം പിന്നെ കൃഷിഫാമീൽ നിന്ന് തെങ്ങും തൈയും ചെറിയ ഒരു പൈസ കൊടുത്താൽ മതി വലിയ ചെറുതായിട്ട് ഉള്ള പൈസ കൊടുത്താൽ മതി